അതിപ്പം എൽ പി ജിയുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇതല്ലേ ഇപ്പം നമുക്കേ പുതിയ ഒരു ഗ്യാസ് ഒരു കുറ്റി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അത് ഇത് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ റഫറൻസ് നമ്പർ എ കെ എൽ പി ജി സീറോ ടു എന്നാണ് ആധാർ കാർഡിൻ്റെ നമ്പർ ആണെങ്കിൽ സെവൻ ടു സീറോ ഫൈവ് സെവൻ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടു ത്രീ ഇതെങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പം ഇനിയും തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു അപ്പം അത് എപ്പോഴത്തേക്ക് കിട്ടും ശരി ഓക്കെ താങ്ക് യു